ഹലോ ഇത് ഫ്രണ്ട്സ്സ് റെസ്റ്റൊറൻറ്റല്ലെ അതെ എനിക്കൊരു പിന്നെ ഒരു മുന്നൂറു പേർക്ക് വേണ്ടിയൊരു ഭക്ഷണം ഓഡര് ചെയ്യാൻവേണ്ടിയായിരുന്നു അപ്പോള് അടുത്ത പിന്നെ അടുത്ത ഞായറാഴ്ചത്തേക്ക് വേണം അപ്പോള് അപ്പോള് അവിടുത്തെ ഭക്ഷണമൊക്കെ പിന്നെ നല്ലതാണെന്നിങ്ങനറിഞ്ഞു അപ്പോള് എനിക്കത് ഓഡര് ചെയ്യാൻ വേണ്ടിയായിരുന്നു അപ്പോള് അതിന്റെ റേയ്റ്റും കാര്യങ്ങളുമൊക്കെ എനിക്കറിയണം പിന്നെ എനിക്ക് വേണ്ടത് മറ്റെ ബിരിയാണി അങ്ങനെ ഫൈഡ് റൈസും ചിക്കനും അങ്ങനെയൊള്ള ഭക്ഷണമാണ് അപ്പോള് അതിന്റെ റേയ്റ്റും കാര്യങ്ങളുമെനിക്കറിയണം പിന്നതേപോലെതന്നെ നല്ല ഭക്ഷണമായിരിക്കണം മസാലയൊന്നും ഒത്തിരി ഇങ്ങനെ കൂടി ചിക്കന് കൂടുതല് വേണ്ട ഫൈഡ് റൈസാണെങ്കിലും അത്യാവശ്യം നല്ല ഒരു ഡ്രൈയായിട്ടിരിക്കണം ഇങ്ങനെ കുഴഞ്ഞുപോകാത്ത പരുവത്തില് തരണം അപ്പോള് ഒരു പ്ലേറ്റിന് എത്ര രൂപ വച്ചാകുമെന്നുള്ളതും അറിയണം പിന്നെ ഇപ്പോള് ചിക്കനൊക്കെ എങ്ങനെയാണന്നറിയത്തില്ല അപ്പോള് എനിക്ക് ബീഫ് കൊണ്ടുള്ള ഇത് മതി ഇറച്ചി ബീഫ് മതി പിന്നെ അപ്പോള് അങ്ങനക്കെയുള്ള കാര്യങ്ങള് അറിയാൻവേണ്ടിയാരുന്നു ഞാൻ വിളിച്ചത് എനിക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് തരുമോ ഞാൻ എന്നു വരണം അപ്പോള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്ക എനിക്കൊന്നിങ്ങോട്ട് പറഞ്ഞു തരണം സംഭവം നല്ല ഫുഡ്ഡാ ആകണം കേട്ടോ എന്നാലെ എനിക്കു പിന്നെ ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കില് നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കത്തുള്ളു അപ്പോള് റേറ്റുമൊക്കെ എനിക്കറേഞ്ച് ചെയ്ത് തരണം അപ്പോള് നിങ്ങളുടെ പരിപാടി ഒരു പ്രാവശ്യം ഞങ്ങളുടെ അവിടെ കൂടിയാരുന്നു അപ്പോള് ഫുഡ്ഡ് നല്ലതായിട്ടെനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഓഡര് ചെയ്യുന്നത് അപ്പോള് അപ്പോള് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്കിട്ടു തരണം പിന്നെ എന്ന് ഞാനെന്റത് ടേയ്സ്റ്റ് ചെയ്യാനായിട്ടെന്ന് വരണമെന്നുള്ളത് പറയണം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങള് അറിയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്